ഹലോ ഹലോ ആ സെഞ്ച്വറി റെസ്റ്റോറൻ്റ് അല്ലെ ഒരു അഞ്ച് ചിക്കൻ ബിരിയാണി പാർസൽ വേണമായിരുന്നു സ്ഥലം മാനന്തവാടി മാനന്തവാടി തന്നെ ആ പേര് അനുശ്രീ ആ അഡ്രസ്സ് ഒന്നു നോട്ട് ചെയ്തോ അനുശ്രീ അനുശ്രീ നിവാസ് കമ്മനം ആ പി ഒ ഓഹ് അതെ അതെ ആ ആ അവിടെനിന്ന് ലെഫ്റ്റിലോട്ട് ലെഫ്റ്റിൽ എത്തിയിട്ടു വിളിച്ചാൽ മതി ആ എത്രയായിരുന്നു ചാർജ് ഒരു ചിക്കൻ ബിരിയാണിക്ക് ആ ഓക്കേ ഓക്കേ ഓക്കേ അഞ്ചെണ്ണം കേട്ടോ എത്ര സമയംകൊണ്ട് എത്തും ആ ആ ആ ആ ചാർജ് കൂടിയോ ഡെലിവറി ചാർജ് ഓക്കേ ഓക്കേ ഓക്കേ അവിടെ എത്തിയിട്ട് വിളിച്ചാൽ മതി കുറച്ച് ഉള്ളിലോട്ട് വരണം അതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് വഴി മനസ്സിലാവുമോയെന്നു അറിയില്ല അതുകൊണ്ടാണ് കുറച്ച് ആ അതെയതെ അവിടെ എത്തിട്ട് വിളിച്ചാൽ മതി ആ വിളിക്കണം അല്ലെങ്കി വഴി മനസ്സിലാവില്ല ഞാൻ അങ്ങോട്ടു വന്നു നിന്നോളാം വണ്ടി കയറില്ല ആ അതുകൊണ്ടാണ് പറഞ്ഞത് ആയിക്കോട്ടെ ഒന്നു ഫാസ്റ്റ് ആക്കുമോ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട് ആ ഓക്കേ ഒരു മണി ആവുമ്പോഴത്തേക്കും എത്തും അല്ലെ ശരി ശരി ഓക്കേ താങ്ക് യു